കൊർ കൊറോണ ഉണ്ടായിരുന്നോ

ആ അ ഒരേത് നല്ലത് അടുത്തിനാ

നിങ്ങള് വാക്സിനേഷൻ ഒക്കെ നടത്തിനാ വാക്സിനേഷൻ ഓക്കേ ഓക്കേ കുറേയായി എടുത്തിട്ട് അ ആ ഇങ്ങള് ഗുളിക എന്തെങ്കിലും കഴിച്ചിനാ

ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുണ്ടോ അ ആ കൊറോണ ടെസ്റ്റ് ചെയ്തിരുന്നോ അ ചെയ്തോക്ക് ഒന്ന് അ ആ ആ ആ നാളെത്തന്നെ നടത്തിക്കോ